ഹലോ ഗുഡീവെനിംഗ് ഞാൻ തങ്കമണി എനിക്കു പല രാജ്യങ്ങളിലും പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഭാഷയെപ്പറ്റി അത്ര വലിയ അറിവില്ല മലയാളം മാത്രമേ എനിക്ക് അറിയൂള്ളൂ ദുബായ് കാനഡാ അങ്ങനെ ഒരു രണ്ടു മൂന്ന് സ്ഥലത്ത് പോകണമെന്നു പണ്ടേ ഉള്ള ആഗ്രഹമാണ്

അപ്പോള് നമുക്കു പോകാനുള്ള ഫുഡൊക്കെയോ

ആണല്ലേ ഞാനിതുവരെ ഫ്ലൈറ്റില് പോയിട്ടില്ല എനിക്ക് പേടിയാണ് അപ്പോള് നമുക്കവിടെ പാർപ്പിട സൗകര്യമൊക്കെയുണ്ടോ ആ ആ ആ എന്നെയൊന്ന് എന്നെയൊന്ന് ഹെല്പ് ചെയ്യുമോ ആ ആ അപ്പോള് നമുക്ക് പൈസ ഉണ്ടാക്കണം അല്ലേ ഏ അത് ദുബായെന്നെ

ആ ക്യാഷ് ഗൂഗിള് പേ ചെയ്യാം താങ്ക്യൂ